അപ്പോള് മറ്റ് മതങ്ങളിൽ നിന്ന് എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാണെങ്കില് ആദ്യന്തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരു കാര്യമാണ് അതായത് അവരെല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ആഴ്ചയും കുടുംബക്കാരെല്ലാം ഒരുമിച്ച് അപ്പോള് അതെനിക്കൊരു നല്ലൊരു സവിശേഷതയായിട്ട് തോന്നിയിട്ടുണ്ട് അവർക്ക് ദൈവത്തിനോടൊപ്പം എല്ലാ ആഴ്ച ഇടപഴകാനും എലാവരുമായിട്ടൊന്ന് കൂട്ട് കൂടാനും എല്ലാം ഒരു നല്ല സംവിധാനമായിട്ടെനിക്കത് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം മുസ്ളീംസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അതായതവര് റംസാന് ഒരു മാസം മുന്നേ തന്നെ ഒരു വ്രതം പോലെ എടുത്ത് തുടങ്ങും അപ്പോള് ഒരു മാസം രാവിലെ തൊട്ട് വൈകുനേരം വരെ ഒന്നും കഴിക്കാതെയും ഒരു നോമ്പെന്ന പറഞ്ഞൊരു ഇതിലൂടെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ അവര് ത്യാഗം ചെയ്ത് ഒരു അവരുടെയൊരു ആചാരമായിട്ട് റംസാനു വേണ്ടി ചെയ്യുന്നത് എനിക്കൊരു നല്ല കാര്യമായി തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം തന്നെ മുസ്ലിംസിൻ്റെ ഒന്നുകൂടെ പറയാണെങ്കില് അവര് അവരുടെ കുട്ടികളെ ചെറുപ്പത്തില് തന്നെ പള്ളിയില് വിട്ട് അവരുടെ അനു അനുചരണങ്ങളും എല്ലാം ഒന്ന് പഠിപ്പിക്കാറുണ്ട് അവരുടെ ഖുറാൻ ബുക്കും അവരുടെ മതത്തേപ്പറ്റിയും എല്ലാം ഒന്ന് പഠിപ്പിക്കാറുണ്ട് അപ്പോള് കുട്ടി ആയിരിക്കുമ്പോള് തന്നെ ഇങ്ങനൊരു കാര്യങ്ങൾ എല്ലാവർക്കും പങ്കിടുന്നതൊരു നല്ലൊരു ആചാരം ആയിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മറ്റ് മതങ്ങളിൽ നിന്നെന്നേ ഞങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവം എന്തെക്കെയാണെന്നു വെച്ചാൽ അത് ക്രിസ്മസ് തന്നെ ആയിരിക്കും കാരണം ഒന്നാമതപ്പോള് എല്ലാവർക്കും വെക്കേഷനായിക്കും അപ്പോള് കുടുംബാഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വന്ന് കേക്ക് മുറിക്കുകയും സ്റ്റാര് തൂക്കുകയും എല്ലാമാണ് പതിവ് അപ്പോള് അതായിക്കും ഒന്നാമത് ഞാൻ ഒന്ന് ആഘോഷിക്കുന്നുണ്ടാവുക പിന്നെ വീട്ടില് കരോളെല്ലാം വന്ന് എല്ലാം തന്നെ ഒന്ന് ഉത്സവം എല്ലാം തന്നെ നല്ല അടിപൊളി ആയിട്ട് തന്നെ നടക്കും പിന്നെ മറ്റു മതങ്ങളിൽ നിന്ന് ഉള്ക്കൊണ്ട കാര്യങ്ങളെന്തെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ് അതായത് താൻ തൻ്റെ മരണത്തിൻ്റെ വക്കിൽ നില്ക്കുമ്പോഴും തന്നെ തൂക്കിലേറ്റിയവരെ മാപ്പാക്കണേ എന്നായിരുന്നു അപ്പോള് നമ്മളോട് ആരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും നമ്മള് മാപ്പാക്കി വിടലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് തന്നെ നല്ലതും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനുമെല്ലാം നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോള് ഇതെല്ലാമാണ് ഞാൻ ഉൾക്കൊണ്ട മറ്റു മതങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട കാര്യങ്ങൾ